ലോകത്തെ പരിവർത്തനം ചെയ്യാൻ കഴിവുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഞങ്ങൾ കരുതുന്ന ഡ്രോണ് ആർട്ടിഫിഷ്യൽ ഇൻ്ലിജൻസ് ഇതൊക്കെ വളരെ നല്ല പിന്നെ മുന്നേറ്റങ്ങളാണ് ലോകത്തിന് കൊണ്ടുവരുന്നത് കാരണം ഡ്രോണുകൾ എന്നു പറഞ്ഞാൽ നമ്മൾ പണ്ടു കാലത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് നമ്മൾ നേരെ നിന്ന് വേണം ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ സൈഡ് ആങ്കിൽ നിന്ന് അങ്ങനെയൊക്കെ പറ്റുള്ളായിരുന്നു പക്ഷേ ഇപ്പം ഏത് വശത്തു നിന്ന് വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് സൈഡിലാണെങ്കിലും ഏത് മൂലക്കായാലും അറിയാൻ പറ്റാത്ത നിഗൂഡ കാര്യങ്ങൾ വരെ ഈ ഡ്രോണുകൾ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് എന്നു പറഞ്ഞാൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ അവയ്ക്ക് ചിന്താ ശേഷി ഇല്ലെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ അവ വഴി നമുക്ക് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം വിവര സാങ്കേതിക വിദ്യയിലെ വളരെ ഒരു വല്യ ഒരു കുതിച്ചു ചാട്ടം തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡ്രോണുകളും എന്നൊക്കെ പറയുന്നത് ഇവ നമുക്ക് ഇനി നമ്മുടെ വരും തലമുറക്കും വരും സമൂഹത്തിനും ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ തന്നെ അപ്പം ലോകത്തിന് ഒരു നൂതനമായ ഒരു നവീനമായ മാറ്റം ഒരു വളരെ വലിയ ഒരു മാറ്റം ഈ ലോകത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൽ ഉറപ്പില്ല എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എടുത്താലും ഇനി ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല നമ്മുടെ സ്കൂളുകളിലായിരുന്നാലും ഓഫീസിലായിരുന്നാലും ഹോസ്പിറ്റലുകളായിരുന്നാലും ബാങ്കായിരുന്നാലും വ്യവസായ സ്ഥാപനങ്ങൾ എവിടെയായിരുന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ എന്ന സംഭവം നമ്മുടെ ക്യാഷ് എല്ലാം ഇപ്പം ഓൺലൈൻ ഇടപാടുകൾ വഴിയാണ് അപ്പം ഈ ഗൂഗിൾ പേ ഒക്കെ വന്നത് കൊണ്ടു തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് പൈസ കൊണ്ട് നമ്മുടെ കൈയ്യിൽ നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഓൺലൈൻ വഴി തന്നെ ഗൂഗിൾ പേ വഴി തന്നെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും അതുപോലെ തന്നെ ഡ്രോണൊക്കെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ എങ്കിലും അവ ചെയ്ത കാര്യങ്ങൾ വളരെ വളരെ വലുതാണ് നമ്മുടെ ഇപ്പം അടുത്ത് കേരളത്തിൽ നടന്ന ഒരുപാട് വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ സന്ദർഭങ്ങളിലെല്ലാം ഈ ഡ്രോണുകൾ വളരെയധികം സഹായകമാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ചു കൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പം നമ്മുടെ ജീവിതത്തിലും ഈ ഡ്രോണുകൾ വളരെ വലിയ സഹായകമാകും സ്വാധീനം ചെലുത്തും എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇനിയുള്ള ലോകത്തിൻ്റെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ സഹായ പരിവർത്തനം ലോകത്തെ പരിവർത്തനം ചെയ്യുന്ന ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നു പറഞ്ഞു എനിക്ക് കാണാൻ സാധിച്ചത് പലർക്കും നമുക്ക് ഈ സാങ്കേതികവിദ്യയിൽ കൃത്യമായി പരിജ്ഞാനം ഇല്ല എന്നുള്ളതാണ് കൃത്യമായ പരിജ്ഞാനം വേണമെങ്കിൽ നമുക്ക് അത് കുറച്ചു പരിശീലനം നമുക്ക് കിട്ടിയേ മതിയാവു ഓരോ സാങ്കേതികവിദ്യയും ഓരോന്നിനും അതിൻ്റെതായ നന്മകളും തിന്മകളുമുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള പരിശീലനം ആവശ്യമാണ് നന്നായി ഉപയോഗിക്കാൻ നമുക്ക് അത് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള പരിശീലനങ്ങളും കൂടെ നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാന്ദർഭിക ചുറ്റുപാടുകൾ ഉണ്ടാകണം ഇപ്പോൾ ഉണ്ടാകുന്നു പക്ഷേ എങ്കിലും എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ ഇപ്പ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാാം ആണെങ്കിലും ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്നു പറയുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് ദോഷം വരിക തന്നെ ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ഗൂഗിൾ പേ ക്യാഷ് അയക്കുവാണെങ്കിൽ അതിൽ ഒരു നമ്പർ തെറ്റിപ്പോയാൽ ആ ക്യാഷ് പോകുന്നത് വേറൊരു അക്കൗണ്ടിലേക്കായിരിക്കും

ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസെന്ന് പറയുന്നത് നമുക്ക് നമ്മടെ വോയിസ് തന്നെ അല്ലേ നമുക്ക് നമ്മുടെ വോയിസിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കേൾക്കാനും ഒരുപാട് ആശയങ്ങൾ കിട്ടാനും ശേഖരിക്കാനും എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചു കുട്ടികൾക്കൊക്കെ വളരെ സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ് എന്നു പറയുന്നത് കുട്ടികുടെ പഠന മേഖലകളിലൊക്കെ ഒരുപാട് സഹായകമാകും എന്നുള്ളതി ൽ ഒരു സംശയമില്ല വരുമർശങ്ങളിൽ ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ പഠന മേഖലകളൊക്കെ അങ്ങനെ തന്നെ ആകും എന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് അങ്ങനെ തന്നെ സങ്കൽപ്പിക്കാം നമ്മുടെ പുസ്തകവും ബുക്കുമൊക്കെ മാറി കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ ലാപ്ടോപ്പ ഒക്കെ ആയിട്ട് വരുന്ന ഒരു സന്ദർഭം സ്ഥിതിവിശേഷം ഒക്കെ നമുക്ക് അധികം വിധൂരമല്ല അപ്പോൾ എല്ലാ മേഖലയിലും നല്ല ഒരു മുന്നേറ്റമാണ് മാനവരായ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ലോകരാജ്യങ്ങളും അപ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഇതിനുള്ള തയ്യാർ എല്ലാ തയ്യാറെടുപ്പുകളിലും ആണ് എല്ലാ രീതിയിലും ഇത് മുന്നോട്ടു കൊണ്ടു പോകുന്നു വളരെ നന്നായി പരിശീലനം ലഭിച്ച വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായ കുറേ അധികം ശാസ്ത്രജഞന്മാരും ഒക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു